ഹലോ ഗ്യാസ് ഏജൻസി അല്ലേ എൻ്റെ പേര് സോണി ആ ഞാൻ ഇവിടെ ആലപ്പുഴ നിന്ന് വിളിക്കുവാണ് ഞാൻ വിളിച്ചതിൻ്റെ കാരണം ഞാൻ സ്ഥലം മാറി വീട് മാറി പോവുകയാണ് അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇത് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാനപ്പം അതിനായിട്ട് അപ്പം എന്തുവാണ് ചെയ്യേണ്ടത് ഇനിയും ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോകുകയാണ് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കാര്യങ്ങളറിയാൻ വേണ്ടിയിട്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ടും വിളിച്ചതാണ് എൻ്റെ ഗ്യാസ് ഐ ഡി റഫറൽ നമ്പര് ഇരുപത്തെട്ട് നാൽപ്പത് അമ്പത്തെട്ട് എഴുപത് മുപ്പത് ആണ് ഇത് റദ്ദാക്കാൻ അഭ്യർത്ഥിക്കുകയാണ്